ഹലോ ബ്രോ ഞാൻ ഒരു പുതിയ സ്പീക്കറെടുത്തായിരുന്നു ഒരു ഹോം തിയേറ്ററെടുത്തായിരുന്നു അത് ഭയങ്കരമൊരൂ കുഴപ്പമാണല്ലൊ അത് എന്തായിപ്പോൾ ചെയ്യുക അത് ഭയങ്കര ലേഗാണല്ലോ കണക്റ്റാക്കാനൊക്കെ ഭയങ്കര സീനാണ് ഹോം തിയേറ്ററ് കണക്റ്റാകുമ്പോൾ ഒരു ലാഗ് കളിയാണ് കളിക്കുന്നത് പിന്നെ ഭയങ്കര ഒരു കരകരപ്പാണ് കണക്ട് ചെയ്താക്കിയാൽ തന്നെ ഭയങ്കര കരകരപ്പ് സൗണ്ടൊക്കെയാണ് എന്തോ ഹൈ സൗണ്ടൊക്കെയാണ് ഇത് വിചാരിച്ചതുപോലെയൊന്നും നടക്കുന്നില്ല ഇതിനെക്കാട്ടിയും എന്നാ നമ്മൾക്ക് ഫോണിൽ വെച്ചാൽ മതിയല്ലോ പാട്ട് ഇതെന്തിനാണ് നമ്മൾ ഇതിൽ വെക്കുന്നത് നമ്മൾ വൃത്തിയായി കേൾക്കാൻ വേണ്ടിയല്ലേ ഹോം തിയേറ്റർ മേടിച്ചത് ഇത് വെറും കരകരപ്പ് മര്യാദയ്ക്ക് ഫോണിൽ ഇട്ടാൽ ഇതിനെക്കാട്ടിയും വൃത്തിക്ക് നമ്മൾക്ക് കേൾക്കാം ഇതൊരുമാതിരി അലമ്പ് സംഭവം ഇത് കണക്ട് ചെയ്യാനും പറ്റില്ല എന്തൊക്കെയോ തല്ലുമാല സാധനങ്ങൾ ഇനി നിങ്ങൾ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിന് നമുക്കെന്ത് നമുക്കിതിനുള്ള ഒരിത് കിട്ടണം ഏഹ് ആ എന്തായാലും നിങ്ങൾ ശരിയാക്കിത്തരണം ഓക്കെ ആ ഓക്കെ ഓക്കെ